കൃഷിയിടത്തിൽ ദിവസം ഒരു മൂന്ന് നാല് മണിക്കൂറ് ചിലവഴിക്കും കൃഷീൻ്റെ കൃഷി ചെയ്യുന്ന ഇടം കിളച്ച് ശരിയാക്കി അതിൻ്റെ കൃഷിയിടമൊരു ചുവട്ടിലുള്ള പുല്ല് എല്ലാം പറിച്ച് മാറ്റി അതിനാവശ്യമായ വളം ഇട്ട് കൊടുത്ത് അങ്ങനെ കൃഷിനെ പരിപാലിക്കുക ആരോഗ്യപരമായിട്ട് നമുക്ക് ആവശ്യമുള്ള നല്ല ഭക്ഷണം കഴിക്കാം അങ്ങനെ വിഷം ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം ആരോഗ്യപരമായിട്ട് പിന്നെ രാവിലെ എഴുനേറ്റ് കുറച്ച് നേരം കൃഷിയിടത്തിൽ ചിലവഴിച്ചാൽ ആരോഗ്യത്തിന് അതും നല്ല ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഷുഗറ് ഇത്രം അസുഖങ്ങളെല്ലാം ഉള്ളവർക്ക് ഒരു നല്ല